ഇപ്പം ഇപ്പം കേരളമൊക്കെ സഞ്ജു സന്ദർശിക്കാൻ വരുന്ന ഒരുപാട് വിനോദസഞ്ചാരികളക്കേണ്ടാവും അപ്പ അവർക്കക്കേന്ന് വച്ചിട്ടുണ്ടെങ്കി പരീക്ഷിക്കാവുന്ന പ്രാദേശികമായിട്ടുള്ള വിനോദ രൂപങ്ങൾന്ന് പറഞ്ഞാ നമ്മുടെ കേരളത്തില് ഒരുപാടുണ്ട് ഇപ്പ നമുക്ക് ഏത് ജില്ലേലും നോക്കീട്ടൊണ്ടെങ്കിലും ഇപ്പം ഒരുപാട് വിനോദ കലാരൂപങ്ങള് കാര്യങ്ങളൊക്കേണ്ട് ഇപ്പ നമുക്ക് വേണങ്കി ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കി തെരുവ് പ്രകടങ്ങള് ഇപ്പ തെരുവിലക്കേന്ന് വച്ചിട്ടുണ്ടെങ്കില് സൈക്കിൾ യജ്ഞം